അങ്ങനെ ഒന്നിലധികം തവണ വായിച്ച ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ട് കുടുതലും വൈക്കം മുഹമ്മദ് ബഷിറിൻ്റെ കഥകൾ ആണ് എനിക്ക് ഇഷ്ടം മതിലുകൾ മതിലുകൾ ഞാൻ രണ്ട് മൂന്ന് വട്ടം വായിച്ചിട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് ഡിഗ്രിക്ക് മതിലുകൾ എന്ന ഒരു പുസ്തകം പഠിക്കാൻ തന്നെ ഉണ്ടായിരുന്നു ഒരു നോവൽ അതെനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടം ആണ് നല്ല അടിപൊളി കഥ ആണ് ജയിലിൻ്റെ അടുത്ത് അതായത് അപ്പുറത്തും ഇപ്പുറത്തും താമസിക്കുന്ന രണ്ട് പേർ തമ്മിലുള്ള പ്രണയം ചൂണ്ടികാണിക്കുന്ന ഒരു കഥയാണ് നല്ല രസമാണ് അവർ കാണാണ്ട് പ്രണയിക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള അതായത് പ്രണയം ഒക്കെ ഇങ്ങനെ തുളുമ്പി നിൽക്കുന്നതൊക്കെ നമുക്ക് അതായത് അത് അവർ ഓർത്ത് ഓരോ ഡയലോഗും ഇങ്ങനെ ഉള്ളത് ഒക്കെ നമുക്ക് കേട്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ് എനിക്ക് ഇപ്പം സർ ക്ലാസ് എടുത്ത് തന്നിട്ടും എനിക്ക് എല്ലാം മനസ്സിൽ ആയിട്ടും ഞാൻ പിന്നെ വീട്ടിൽ പോയിട്ട് ഒന്നൂടെ വായിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഒന്നും കൂടി അത് ഭയങ്കര ഇഷ്ടം ആണെനിക്ക് മതിലുകൾ എന്ന് പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം വൈക്കം മുഹമ്മദ് ബഷിറിൻ്റെ അവസാനം അതായത് അവർ അപ്പറത്തും ഇപ്പറത്തും ഒരു മതിലിൻ്റെ അപ്പുറത്തും ഇപ്പറത്തും നിന്ന് സംസാരിക്കുന്നത് അതായത് ആ ഒരു രീതി സംസാരിക്കുക അല്ല അവർ ജീവിക്കുന്നത് പോലെ തന്നെ നമുക്ക് തോന്നുകയായിരുന്നു എനിക്ക് അത് എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അത് ഇപ്പോൾ മതിലുകൾ എന്ന് പറഞ്ഞ ഒരു സംഭവം ഒരു സിനിമയായിട്ട് ഒരു സിനിമയായിട്ട് ഉണ്ട് അത് കണ്ടിട്ടും ഉണ്ട് ഞാൻ